ഹലോ ആ ഇത് ശ്രീജിത്തായിരുന്നു ആ നിങ്ങള് ഞാനിപ്പോൾ ബുക്കെയ്തിട്ടുണ്ടായിരുന്നു ക്യാബേ അപ്പോൾ നിങ്ങള് എവിടെ എത്തി എന്നു അറിയാൻ വേണ്ടിട്ടായിരുന്നെ ആ ഓക്കേ അല്ല ഞാൻ കുറേ നേരായിട്ടിവിടെ നിക്കാനിപ്പോൾ രാവിലെ തൊട്ട് ഞാനിവിടെ നിക്കാണ് നിങ്ങള് പത്തു മിനിറ്റുകൊണ്ട് എത്താന്നായിരുന്നു എന്നോട് പറഞ്ഞത് പക്ഷെ ഇതുവരെ പത്തുമിനിറ്റായിട്ടും നിങ്ങളെത്തിയിട്ടില്ലല്ലോ അതാ ഞാൻ വിളിച്ചു നോക്കിയത് ഇപ്പോൾ നിലവില് നിങ്ങളിപ്പോൾ എവിടെയാ എത്തിയിരിക്കുന്നത് ആ ഓക്കേ ഓക്കേ ബൈപാസ്സ് ജംഗ്ഷൻ അല്ലേ അവിടുന്നിങ്ങോട്ടേക്ക് ഏകദേശൊരു പത്തു മിനിറ്റുകൊണ്ട് നിങ്ങൾ എത്തുമോ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ ഓക്കേ ഓക്കേ വേഗം വരായിരുന്നെങ്കിൽ കുറച്ചുംകൂടെ നല്ലതായിരുന്നു കാരണം എന്താ വെച്ചു കഴിഞ്ഞ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിരുന്നെ ആ ഓക്കേ വേഗം വേഗം വരായിരുന്നെങ്കി കുറച്ചൂടെ നല്ലത് അതെ അതെ അതെ ആ ഓക്കേ ഓക്കേ എന്നാ വേഗം പോന്നോളുട്ടോ ആ ഓക്കേ ഓക്കേ